എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഐ ഫോൺ ആണ് ഐ ഫോൺ തേർട്ടീൻ പ്രോ അത് എൻ്റെ ഫ്രണ്ട് എനിക്ക് റെക്കമെന്റ് ചെയ്തതാണ് അവൾ പറഞ്ഞു നല്ല ഫോണാ അവൾ അവളുപയോഗിക്കുന്ന ഫോണാണ് നല്ല ഫോൺ നല്ല ക്യ ക്ലാരിറ്റി ഉണ്ട് അപ്പോൾ ഞാൻ അത് ആ ക്ലാരിറ്റി ഉണ്ടല്ലോ എന്നൊക്കെ വിച്ചാരിച്ച് മേടിച്ചതാണ് അപ്പോൾ നല്ല ഫോൺ ഞാനിപ്പോൾ ഇത്ര യൂസ് ചെയ്ത് ഏറ്റവും എത്ര യൂസേജ്സ് ഉണ്ടോ അതിനേക്കാട്ടും ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി തിൻ വെയിറ്റ് വെയിറ്റ് കുറവാണ് പിന്നെ അത് നമുക്ക് എന്താപറയ വെള്ളത്തിൽ വീണാൽ ഒരു കുഴപ്പവുമില്ല ബാക്കി ഏത് ഫോണണെങ്കിലും വെള്ളത്തിൽ വീണാൽ അപ്പോൾ തന്നെ ഡാമേജ് ആകും ഈ ഫോണങ്ങനെ അല്ല പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഫ്രണ്ട് എനിക്ക് ഫ്ലിപ്പ് കാർട്ടീന്ന് ഓർഡർ ചെയ്യാനാണ് അവളെന്നോട് പറഞ്ഞത് ഞാൻ അവിടുന്നന്നെ ഓൾ ഓർഡർ ചെയ്തു നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ എല്ലാവരും ഈ പ്രോഡക്ട് വാങ്ങിച്ച് യൂസ് ചെയ്യണം എന്നെന്ന്യാണ് എൻ്റെ അഭിപ്രായം ഇതിൻ്റെ സ്ക്രീനിനൊക്കെ നല്ല കട്ടിയുണ്ട് നിലത്ത് വീണാലും അങ്ങനെയൊന്നും പോട്ടിപോകില്ല പിന്നെ പിന്നെന്താ ഇത്രയൊക്കെ നല്ല ഗുണങ്ങളുണ്ട് ഈ ഫോണിന് എല്ലാവരും വാങ്ങിച്ച് ഈ ഫോണ് യൂസ് ചെയ്യുക എന്നെ എനിക്ക് പറയാനുള്ളു